കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെയോ പ്രശസ്ത രാഷ്ട്രീയക്കാരെയോ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതിൽ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പി ഗോവിന്ദ പിള്ള സി പി വി പത്മരാജൻ ഈ അഹമ്മദ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ അങ്ങനെയുള്ള രാഹുൽഗാന്ധി അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അതിലിപ്പോൾ രാഷ്ട്രീയത്തിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കി ഇപ്പം മാർക്കിസ്റ്റ് ഇടത് പക്ഷമാണെങ്കിലും മാർക്കിസ്റ്റ് ആണെങ്കിലും അവർ യു ഡി എഫിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും അങ്ങനെ പിന്നെ സരിത അങ്ങനെയുള്ള ഓരോ കേസിലൊക്കെ പെടുത്തുകയൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട് അങ്ങനെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എന്നു പറയുന്നത് ആദ്യത്തെ പോലെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാകണം എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സേ ജനങ്ങൾക്ക് സേവനമല്ല ചെയ്യുന്നത് ജനങ്ങൾക്ക് ദ്രോഹമാണ് ചെയ്യുന്നത് വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് തന്നെ നല്ല സ്നേഹത്തിൽ വർത്താനം പറയും നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ അത് നടത്തി തരും റോഡ് ഇല്ലെങ്കിലും റോഡ് ഞാൻ വെച്ചു തരും നിങ്ങൾക്ക് വീട് അടുത്ത ഈ വർഷം തന്നെ നിങ്ങൾക്ക് വീട് വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് വീടില്ലാത്തവർക്കാണെങ്കിലും പാവപ്പെട്ടവർക്ക് ആണെങ്കിലും ഓരോ ആദിവാസിയിൽ പെട്ടവർക്കൊക്കെ ആണെങ്കിലും കള്ളും പണവും ഒക്കെ കൊടുത്തിട്ട് അവരെ മയക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവരെ അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും കള്ളവോട്ടൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെ വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇവരെ ജ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജയിച്ച സമയത്ത് ഒന്ന് എല്ലാ വോട്ട് ചെയ്ത എല്ലാവർക്കും ഒന്ന് ആശംസ പറയും ഒരുപാട് നന്ദിയുണ്ടേ എന്നൊക്കെ പറയും പിന്നെ ആ ഭാഗത്തേക്ക് കാണില്ല എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിലേക്കൊക്കെ ഇവരുടെ അടുത്തേക്കൊക്കെ ചെ ചെന്നാൽ ഇവർ നമ്മളോട് ഒന്നും മിണ്ടുകയൊന്നുമില്ല ആ റെഡിയാക്കി തരാം റെഡിയാക്കി തരാം എന്ന് പറയും എന്നിട്ട് റെഡിയാക്കി താരികയൊന്നും ഇല്ല അതാണ് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ